ഇന്ത്യയിലെ കലാകാരന്മാർക്ക് മതിയായ പ്രാധാന്യവും അവസരവും അവസരങ്ങളും പലപ്പോഴും നിഷേധിക്കപ്പെടുന്നുണ്ട് എന്ന് ഒരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ കഴിവിനെക്കാളും ഉപരി നമ്മുടെ പവറ് നമ്മുടെ പൊളിറ്റിക്കൽ പവർ ആയിക്കോട്ടെ ഫാമിലി ബാഗ്രൗണ്ട് ആയിക്കോട്ടെ എല്ലാം എല്ലാം ആ പവറിൻ്റെ ബേസിലാണ് എല്ലാ കാര്യങ്ങൾക്കും യോഗ്യനും അർഹനും നമ്മൾ തീരുമാനിക്കുന്നത് കാരണം കഴിവുള്ളവനെക്കാളും സപ്പോസ് ഇന്നത്തെ കാഴ്ചപ്പാടിൽ കഴിവുള്ളവനെക്കാളും അർഹനെന്ന് പറയുന്നത് അവിടെ പവർ ഉള്ളവനാണ് സോ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും എക്സ്ട്ര ആയിട്ട് പിടിപാടോ മറ്റു ബന്ധമോ റിലേഷനോ കീപ്പ് ചെയ്യുന്നുണ്ട് വച്ചാൽ സൊ ഒരു കഴിവുള്ളവനും ഇവനും തമ്മിൽ കോമ്പറ്റീഷൻ വരുമ്പോൾ മറ്റവൻ മറ്റവൻ സ്വാഭാവികമായിട്ടും തഴയപ്പെടുകയാണ് അവിടെ കാരണം ഇവനവിടെ പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും പേരിൽ കയറിപ്പോവും അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ കലാകാരന്മാർക്കും നഷ്ടപ്പെടുന്നുണ്ടെന്ന് ഒരു അഭിപ്രായം ഉള്ള ആളാണ് ഞാൻ